ഞാന് നാണയവും സ്റ്റാമ്പുകളുമൊക്കെ ശേഖരിക്കാന് തുടങ്ങിയ കാലം മുതൽ അതിനെ അങ്ങനെ ക്രമപ്പെടുത്തിയൊന്നും വച്ചിട്ടില്ല ഞാന് എല്ലാം സ്റ്റാമ്പുകളെല്ലാം ഒരു കവറിലാക്കി അത് ഒരിടത്ത് സൂക്ഷിച്ചു വയ്ക്കും പിന്നെ കോയിന്സ്സ് കിട്ടുന്നതും അങ്ങനെ തന്നെ ചെറിയ ഒരു ബാഗ് ഏടുത്തുവച്ചിട്ടുണ്ട് അതിന് അകത്തിട്ടാണ് സൂക്ഷിച്ചിരുന്നത് പിന്നേ പിന്നെ കുറേനാൾ ആയപ്പം പിള്ളാരൊക്കെ ഒന്ന് സ്കൂളിൽ പോവാറായപ്പോഴത്തേക്ക് ഞാന് വിചാരിച്ചത് ഇങ്ങനെ വച്ചിരുന്ന എന്തായിരുന്ന് ഇരുന്നാലും ഞാൻ എനിക്ക് അവര്ക്ക് ഉപയോഗിക്കാനോ എനിക്കും നേരെ ചൊവ്വെ നോക്കാനോ പറ്റൂല്ല കാരണമെന്നു പറഞ്ഞാൽ പിന്നേയും സ്റ്റാമ്പുകൾ വച്ചുവച്ച് വന്നപ്പം അതും ഒരുപാട് കൂടി വരികയാണല്ലോ അപ്പോൾ എല്ലായിടത്തും നോക്കണ്ടെ അങ്ങനെയാണ് ഈ സ്റ്റാമ്പുകൾ ക്രമപ്പെടുത്തി വയ്ക്കാന് പറ്റിയ ഒരു ബുക്ക് അ ബുക്ക് പോലത്തെ ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഫയല് പോലത്തെ ഒരു ഇത് അത് വാങ്ങിച്ചു കൊണ്ടു വന്ന് അത് വാങ്ങിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഓരോ ഇടത്തും സ്റ്റാമ്പുകൾ ഇങ്ങനെ ഒരോ പല രാജ്യങ്ങളുള്ളത് ആ രീതിക്ക് ഒരു ഇടത്ത് അടയ്ക്കുകയും നമ്മുടെ ഇന്ത്യയില് നിന്നുള്ള സ്റ്റാമ്പുകളാണ് എൻ്റേതിൽ കൂടുതലുമുള്ളത് പിന്നെ സൗദി അറേബ്യയിൽ നിന്നുള്ളതുമുണ്ട് അപ്പോൾ അതൊക്കെ എന്നു പറഞ്ഞാൽ പല പേജുകളിലാക്കി ആക്കിയാണ് ഞാൻ അടുക്കി വയ്ക്കുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് അതെടുത്ത് മറിച്ച് നോക്കുമ്പം തന്നെ അത് നല്ല ഭംഗി ആയിട്ടറിയാന് സാധിക്കും അല്ലെങ്കിപ്പിന്നോരോന്നോരോന്നായിട്ടിങ്ങനെ എടുത്തുനോക്കണവാര്ന്ന് ഇപ്പം അതിന്റെ മുകളിൽ തന്നെ രാജ്യത്തിന്റെ പേരും എഴുതി താഴെ ഈ സ്റ്റാമ്പുകളുമൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും കാണാനും ഒരു ഭംഗി ഉണ്ട് നമുക്ക് പെട്ടന്ന് ആ ഇവിടുത്തെ സ്റ്റാമ്പാണ് എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും പിന്നെ ഇവിടെ ഉള്ളതാണെങ്കിൽ കുറേ സ്റ്റാമ്പുകൾ പല രീതിയിലാണ് ഞാന് അടുക്കി വച്ചേക്കുന്നത് കാരണം ഒരു രൂപയുടെ സ്റ്റാമ്പ് അഞ്ചു രൂപയുടേത് പത്തു രൂപയുടേത് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭഒഗിയിൽ അങ്ങ് അടുക്കി വച്ചിട്ടുണ്ട് ആദ്യം വേറെ ഒരു രീതിയിൽ അടുക്കി വച്ചു അപ്പോൾ അതെനിക്ക് അത്ര കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ തരം തിരിച്ച് രാജ്യങ്ങളുടെ ഇത് അനുസരിച്ച് ഞാന് അടുക്കി വച്ചത് അപ്പോൾ അത് എല്ലാവര്ക്കും ഇഷ്ടപ്പെട്ടു അപ്പം പുള്ളാര് പേരെടിക്ക് പേരൊക്കെ എഴുതി കൊണ്ടു പോകുമ്പം അവര്ക്കുമൊരു സന്തോഷം കുട്ടികളൊക്കെ വന്നു നോക്കിയിട്ട് ആ കൊള്ളാം നമുക്ക് സ്റ്റാമ്പൊക്കെ നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെ ഓരോ രാജ്യത്തെ സ്റ്റാമ്പുകളാണ് ഇത് എന്നൊക്കെ അറിയാന് പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ കുട്ടികൾ പറയാറുണ്ട് എന്ന് മക്കൾ പറയുന്നുണ്ട് അപ്പം അത് കേൾക്കുമ്പം എനിക്ക് ഒരു സന്തോഷം തന്നെയാണ് പിന്നേ പിന്നെ നാണയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണയങ്ങൾ ഞാന് അതു അങ്ങനെ തന്നെ അതും വയ്ക്കാനുള്ള ഫയലുണ്ട് അപ്പ ആ ഫയല് വാങ്ങിച്ചതിന് ശേഷം അതിൽ ഏറ്റവും ചെറിയ നാണയം മുതൽ ഏറ്റവും വലിയ നാണയം വരെ വരണ രീതിയിലാണ് അടുക്കി വയ്ക്കുന്നത് അത് നമ്മൾ നാട്ടിലെ നമ്മുടെ ഇന്ത്യലെ നാണയം മാത്രം ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിന്റെ നാണയമനുസരിച്ച് ഞാൻ അത് തിരിച്ച് തിരിച്ചാണ് എടുക്കുന്നത് എന്നിട്ട് അതിന്റെ മോളിത്തന്നെ ഒട്ടിച്ച് വയ്ക്കും കാരണം നമ്മൾ അറിയണമല്ലോ പിള്ളേര്ക്ക് എക്സിബിഷനൊക്കെ പങ്കെടുക്കാന് കൊണ്ടു പോകുമ്പോഴത്തേക്കും അറിയണമല്ലോ ഇത് ഏത് രാജ്യത്തെ നാണയമാണ് എന്നല്ലാതെ അവർ ഇപ്പോൾ വന്നു നിന്ന് നോക്കി ഓരോ കോയിനും കണ്ടിട്ട് അ ഇത് ഇന്നടുത്തതാണ് എന്ന് പറയാന് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെ അത് കൊണ്ട് ഞാന് പേപ്പറിൽ എഴുതി അതിന്റെ പുറത്ത് ഒട്ടിച്ചു വയ്ക്കും ഈ രാജ്യത്തെയാണ് അപ്പോൾ നോക്കുമ്പോൾ അത്രയും പേജുകൾ ആ രാജ്യത്തെ നാണയമായിരിക്കും പിന്നെ നോട്ടും കളക്റ്റ് ചെയ്യാറുണ്ട് അതും അങ്ങനെ തന്നെ അതും ഓരോ രാജ്യത്തിന്റെ ആയിട്ട് തിരിച്ചാണ് ഞാന് വച്ചേക്കുന്നത് അതിലും ഇങ്ങനെ പേര് എഴുതിയേക്കും രണ്ട് മിക്കവാറും രണ്ട് നോട്ട് വീതം തന്നെയാണ് വയ്ക്കണെ കാരണം ഒരു രണ്ടു ഭാഗവും കാണണമല്ലോ ആ രീതിക്കുള്ള അങ്ങനത്തെ ഫയലാണ് എൻ്റെ കൈയിലിരിക്കുന്നത് അതുകൊണ്ട് രണ്ടു ഭാഗവും കാണണ രീതിയിൽ ഒരു നോട്ട് അങ്ങോട്ടും ഒരു നോട്ട് ഇങ്ങോട്ടുമായിട്ട് തിരിച്ചു വയ്ക്കും അപ്പം രണ്ട് ഭാഗവും കാണാന് സാധിക്കും പിന്നെ ഇത്രയൊക്കെയാണ് ഞാന് അതിനെ ക്രമപ്പെടുത്തി വയ്ക്കാന് പ്രദര്ശനത്തിന് കൊടുത്തയക്കുമ്പം ശ്രദ്ധിക്കയൊക്കെ ചെയ്യുന്നത് പിന്ന കോയിനൊന്നും നഷ്ടപ്പെടാതിരിക്കാന് വേണ്ടി ഞാന് കോയിന് വയക്കണതിൻ്റെ വായ് ഭാഗം ഒരു സെല്ലോടേപ്പ് വച്ച് എല്ലാ വശവും സെല്ലോടേപ്പ് മാറ്റിയതിന് ശേഷം നന്നായിട്ട് സെല്ലോടേപ്പ് വച്ച് ഒട്ടിച്ച് തന്നെയാണ് കൊടുക്കുന്നത് കാരണം പിള്ളാരല്ലെ അവർ കൊണ്ടുപോകുമ്പം അവർ അധികം ശ്രദ്ധിക്കുകയില്ല അവർ ഏതെങ്കിലും കുട്ടികളൊക്കെ എടുത്തു കൊണ്ട് പോവുകയോ തറയിൽ വീണ് നഷ്ടപ്പെടുകയോ എന്നൊക്കെയുള്ള ഒരു ഭയം എനിക്കുണ്ട് കാരണം ഇതൊക്കെ എന്നു പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടു കിട്ടിയ കോയിന്സൊക്കെയാണ് അപ്പോൾ അത് നഷ്ടപ്പെടുത്താനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുമുണ്ട് അപ്പോൾ എനിക്ക് അത് നല്ല വിഷമാവും അതുകൊണ്ടാണ് ഞാന് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കോയിന്സൊക്കെ ഉണ്ടെങ്കിൽ ഞാന് കൊടുക്കാറുണ്ട് പക്ഷെ അങ്ങനെയധികം കോയിന്സ്സൊന്നും എന്റെ കൈയിൽ അങ്ങനെ ഒന്നില് കൂടുതൽ ഒക്കെയുള്ളത് വളരെ വളരെ കുറച്ച് കോയിന്സ് മാത്രമേ ഒന്നില് കൂടുതലുള്ളു കൂടുതല് കോയിന്സ്സും ഉള്ളത് പിന്നെ ഒരെണ്ണം വീതമുള്ളത് തന്നെയാണ് കൂടുതലുമുള്ളത് എന്നാലും ഇപ്പോഴും കിട്ടുന്നതൊക്കെ ഞാന് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് ഇപ്പോഴും പലരും ഇങ്ങനെയൊക്കെ അറിയാവുന്നതു കൊണ്ട് ആര്ക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും കോയിനൊക്കെ കിട്ടുമ്പോൾ കൊണ്ടു തരാറുണ്ട്